ഒരു സുപ്രധാന തീരുമാനമെടുക്കേണ്ടി വന്ന സന്ദർഭത്തെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമാണ് എനിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെൻ്റെ കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം ഒരു ലവ് മാരേജ് ആയിരുന്നു ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏഴ് വർഷം പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പം എൻ്റെ ഹസ്ബൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിയും ഞാൻ ഒരു ഹിന്ദുവും ആണ് അതുകൊണ്ടുതന്നെ എനിക്ക് വീട്ടിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടുകാർ സമ്മതിക്കാത്ത അതായത് ഹസ്ബന്റിൻ്റെ വീട്ടുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്കാണല്ലോ അപ്പോൾ അവർ ക്രിസ്ത്യാനി ആക്കാം എന്നുള്ള രീതിയിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ വീട്ടിലാണ് മെയിൻ പ്രശ്നം അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ ഹസ്ബന്റിൻ്റെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വരേണ്ട ഒരവസ്ഥ വന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ വീട്ടിൽ പിന്നെ കല്യാണ ആലോചന കാര്യങ്ങൾ ഒക്കെ നടത്താൻ തുടങ്ങി വീട്ടുകാർ അപ്പോൾ എനിക്ക് ടെൻഷനായി കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ ഒരാളെ എപ്പോഴും കണ്ടിട്ട് അതായത് നമ്മുടെ ഹസ്ബൻഡ് ആയിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളെയാണ് വേറൊരാളെ കല്യാണം കഴിക്കാൻ എന്നു പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒളിച്ചോടാ അതായത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ പ്രധാന തീരുമാനം എടുക്കേണ്ടി വന്ന ഒരു സന്ദർഭം